ആ അതെയായിരുന്നല്ലോ ആരായിരുന്നു വിളിക്കുന്നത് ആ ഓക്കേ നിങ്ങൾക്ക് ഏതു ഭാഗത്തായിട്ടാണു വീടു വേണ്ടത് എങ്ങനെയുള്ള വീടായിരുന്നു നിങ്ങൾ ഉദ്ദേശിക്കുന്ന് എത്ര സ്ക്വയർ ഫീറ്റ് വേണം എത്ര ബെഡ്റൂം ആ ഹാ അ ഒരു നിലയാണോ രണ്ടു നിലയാണോ വേണ്ടത് ആ ഒറ്റ നിലയാണു വേണ്ടതല്ലേ മുരിക്കാശ്ശേരി ഭാഗത്താണോ വേണ്ടത് മുരിക്കാശേരിയില്നിന്നു കുറച്ചു മാറിയാൽ കുഴപ്പമുണ്ടോ മുരിക്കാശേരി സിറ്റിയില്ത്തന്നെ വേണമെന്നൊന്നുമില്ലല്ലോ ആ ആ നമുക്ക് മുരിക്കാശ്ശേരി പാവനാത്മ കോളേജറിയുമോ ആ പാവനാത്മ കോളേജിൻ്റെ അങ്ങോട്ട് കയറിപ്പോകുമ്പോൾ അവിടെ ഒരു വീടുണ്ട് ഒരു രണ്ടുനില വീടാണ് രണ്ടായിരത്തിനു മുകളിൽ സ്ക്വയർ ഫീറ്റുള്ള വീടാണ് എല്ലാ സൗകര്യങ്ങളുമുണ്ട് നാല് ബെഡ്റൂം അറ്റാച്ഡ് ബാത്റൂം എല്ലാ സൗകര്യങ്ങളുമുണ്ട് മുറ്റം ഒക്കെ ടൈലിട്ട് മതിലൊക്കെ കെട്ടിയ നല്ല വീടാണ് അവിടെ ആകുമ്പോൾ പിന്നെ കോളേജ് സ്കൂള് ഹോസ്പിറ്റല് എല്ലാം സിറ്റിയിലേക്കാണെങ്കിൽ അധികം ദൂരമില്ല എല്ലാ സൗകര്യങ്ങളും ഉള്ള വീടാണ് അതു നോക്കിയാല് ആ വഴി സൗകര്യങ്ങൾ എല്ലാം ഉണ്ട് അത് അതാകുമ്പോള് നിങ്ങള് എത്ര രൂപയാണ് ഉദ്ദേശിക്കുന്നത് എത്ര രൂപയുടെ വീടാണ് ഉദ്ദേശിക്കുന്നത് അതിനൊരു എഴുപത്തിയഞ്ച് ലക്ഷമൊക്കെ വരും എഴുപത്തിയഞ്ച് നമുക്കിപ്പോള് ഇ എം ഐ ഒക്കെ ഇട്ട് ബാക്കി ലോണിട്ട് മേടിക്കാമല്ലോ ഒരു അമ്പത് അം നമുക്കു കുറച്ച് കാശു കൊടുത്തിട്ട് ബാക്കി നമ്മള്ക്ക് ലോൺ സൗകര്യവും ഉണ്ട് അപ്പോള് നമുക്ക് ബാക്കി ലോൺ ലോണിട്ട് നമുക്ക് മേടിക്കാം ആ വറ്റാത്ത വെള്ളം ഉണ്ട് പിന്നെ നമ്മുടെ കുടിവെള്ളം കുടി മറ്റേ ജലനിധിയുടെ വെള്ളവും അവിടെ ഉണ്ട് പക്ഷേ നമ്മുടെ അവിടെ അവർക്കു കിണറുണ്ട് കിണറില് വറ്റാത്ത വെള്ളമുള്ള കിണറാണ് അതും മുറ്റത്തു തന്നെ വറ്റാത്ത വെള്ളമുള്ള കിണറുണ്ട് പിന്നെ നമുക്ക് ആവശ്യമാണെങ്കിൽ മറ്റേ ജലനിധിയുടെ വെള്ളവും കൂടെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ആ ആ നമ്മുടെ വീടിൻ്റെ മുറ്റം വരെ വണ്ടി വരുന്നതാണ് ടാർ റോഡ് വീടിനോടു ചേർന്നു തന്നെ ടാറിട്ട റോഡാണ് നല്ല നിരന്ന സ്ഥലമാണ് ആ ഏകദേശം ഒരു ഇരുപത് സെൻ്റ് സ്ഥലമുണ്ട് നമുക്കത്യാവശ്യം കൃഷി ചെയ്യാനുള്ള സൗകര്യവും ഉള്ള ഒരു സ്ഥലം ഏരിയയും കൂടിയാണ് ആ ഉണ്ട് നമുക്ക് അത്യാവശ്യം കൃഷി കാര്യങ്ങളെല്ലാം ചെയ്യാം പിന്നേ നമുക്കിപ്പോള് നനക്കാനാണെങ്കിലും വെള്ളമുണ്ടല്ലോ അപ്പള്പ്പിന്നെ നമുക്കത്യാവശ്യം കൃഷി ചെയ്യുന്നതിനും ഒന്നും ബുദ്ധിമുട്ടുള്ള സ്ഥലമല്ല എല്ലാ സൗകര്യങ്ങളും ഉള്ളതാണ് കൊച്ചിന് കുട്ടി സ്കൂളില് പഠിക്കുന്ന കുട്ടിയുണ്ടോ ആ കുട്ടി സ്കൂളില് പഠിക്കുന്ന കുട്ടി ഉണ്ട് അപ്പോള് നിങ്ങള്ക്ക് സ്കൂളിൽ വിടാനാണേലും സൗകര്യമാണല്ലോ ഇനിയിപ്പോള് നിങ്ങളുടെ കുട്ടി സി ബി എസ് ഇ സ്കൂളിലാണു പഠിക്കുന്നതെങ്കിലും അവിടെ അടുത്ത് ഡീപോൾ സ്കൂളുണ്ടല്ലോ ആ അതെ സ്കൂൾ ബസാണെങ്കില് ഈ മുരിക്കാശ്ശേരി സ്കൂളിൻ്റെ ബസാണെങ്കിലും ഡീപോൾ സ്കൂളിൻ്റെ ബസാണെങ്കിലും നിങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടില് കൂടിയാണു പോകുന്നത് അപ്പോള് കുട്ടീനെ സ്കൂളിൽ വിടുന്നതിനും എല്ലാത്തിനും വളരെ സൗകര്യമുള്ളൊരു വീടാണ് അതെ ഇനിയിപ്പോള് ഞാന് അതിൻ്റെ ഉടമസ്ഥനുമായിട്ട് സംസാരിച്ചിട്ട് നിങ്ങൾക്ക് ലോൺ വേണമെന്നുണ്ടെങ്കില് ലോൺ വേണമെന്നുണ്ടെങ്കില് ഞാന് ലോൺ സൗകര്യവും കൂടെ ശരിയാക്കിത്തരാം അപ്പോഴാദ്യം നിങ്ങള് വന്ന് ഈ വീടൊന്നു കാണൂ നിങ്ങളിങ്ങനെ സംസാരിച്ച് വീടൊന്നു വന്നുകണ്ടിട്ട് ബാക്കി നമുക്ക് പ്രൊസീഡെയ്യാം നിങ്ങള് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ എൻ്റെ ഈ നമ്പറിൽ വിളിച്ചാല് മതി കേട്ടോ നിങ്ങളെന്നാണെന്നൊന്നറിയിച്ചാല് മതി എൻ്റെ ഈ നമ്പറിൽ ബന്ധപ്പെട്ടാല് മതി ആ ഓക്കെ ഓക്കെ ഓക്കെ